ഇരുപത്തെട്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത് മൂന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നാല് ഏഴ് രണ്ടായിരത്തി മൂന്ന് അഞ്ച് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത്